ഞാനിപ്പോൾ മലയാള ഭാഷ പഠിച്ചതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ ചെറുപ്പം മുതൽ കേരളത്തിൽ തന്നെ വളർന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മലയാളം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ മലയാളം പഠിച്ചത് എന്താ വെച്ചാൽ വീട്ടില് എല്ലാവരും സംസാരിക്കുന്നത് മലയാളഭാഷയില് ആയതുകൊണ്ട് തന്നെ എനിക്കും മലയാളഭാഷ പഠിക്കാൻ എളുപ്പമായിട്ട് കഴിഞ്ഞു പിന്നെ ഇത് പഠിച്ചതുകൊണ്ടിപ്പോൾ എനിക്കുള്ള അനുഭവമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയിക്കഴിഞ്ഞാലും എനിക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമാണ് ഇപ്പോൾ കൂടുതലും കേരളത്തിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളുവെങ്കിലും ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കേറ്റവും എളുപ്പമുള്ള ഭാഷ എന്ന് പറയുമ്പോൾ മലയാളഭാഷ തന്നെയാണ് പിന്നെ ഇന്നിപ്പോൾ മലയാള ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല രീതിയ്ക്ക് തന്നെ അത് മറ്റേ ഇതും പഠിക്കുന്നുണ്ട് ലാംഗ്വേജുകളും എന്നാലും പുറമെ ഉള്ളവരൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിലേക്കൊക്കെ വരുന്നത് മലയാള ഭാഷേൻ്റെ ഇത് കൊണ്ട് തന്നെയാണ് അതിലെ കവിതകളും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക അർത്ഥവത്തായിട്ടുള്ള കവിതകളും കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് ഉള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തില് മലയാളഭാഷക്ക് ഒരുപാട് സവിശേതകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്